ചേട്ടാ നമസ്ക്കാരം ഞാന് അഖില് വീട് കോട്ടയം ആണെ ഇപ്പോൾ നമ്മുടെ കെ ആർ ഇ റെസ്റ്റോറൻറ്റ് ആ ഓക്കെ ഇപ്പോൾ ഞാൻ വിളിച്ചത് എനിക്കൊരു ഓർഡറുണ്ടായിരുന്നു ഫുഡിൻ്റെ ഒരു രണ്ട് ക്വാർട്ടർ അൽഫാമും പിന്നെ ഒരു ബിരിയാണി ഒരെട്ട് പൊറോട്ട പൊറോട്ടക്കിപ്പ കറി ചിക്കൻ കറി അല്ലങ്കിൽ മുട്ടക്കറി എന്തെങ്കിലും വച്ചാ മതി പിന്നെ അതില് നമുക്ക് മറ്റേ ഉപ്പ് കുറച്ച് കമ്മിയാക്കീട്ടെ മറ്റ് രണ്ട് മൂന്ന് ആൾക്കാർക്ക് ബിപിം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഉപ്പ് കമ്മിയാക്കണം അതുപോലെ എരിവ് അത്രക്ക് വേണ്ട പാകത്തിനുള്ള എരിവ് മതി ഒരു പാട് എരുവ് വേണ്ട അപ്പോൾ അതൊന്ന് സെറ്റാക്കീട്ട് തരാൻ പറ്റുമോ അതിൻ്റെ എമൗണ്ട് എത്രയാണ് കാര്യങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നറിയാൻ വേണ്ടീട്ട് ഞാൻ വിളിച്ചതാണ് അപ്പോൾ അതൊന്ന് വേഗം എനിക്ക് പറഞ്ഞ് തരണം